ആ നമസ്കാരം ആ പറയൂ ആ മെയ്സൺ

ആ പറയൂ നിങ്ങൾക്ക് എങ്ങനെത്തെ മാതിരി ആണ് വേണ്ടത് മോഡലൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ മോഡൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ എങ്ങനത്തെ മോഡൽസാണ് കാണിക്കുന്നത് എങ്ങനെത്തെയാണ് വേണ്ടത് പറയൂ

മ് മ് മ് അതിപ്പോൾ ഇതിപ്പോൾ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് മെയിനായിട്ട് ഇപ്പം സെന്ററിൽ കൂടിയാണ് നമ്മള് പോയിന്റ് ചെയ്യുന്നത് അപ്പോൾ അല്ലെങ്കിൽ മരം പിന്നെ ഫർണിച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കുറെ വരും അത് നിങ്ങക്ക് അങ്ങനെ ചെയ്യാൻ അല്ലെങ്കിലും ഞങ്ങൾ വേണം ചെയ്യാൻ ഞങ്ങള് മെയിനായിട്ട് ഞങ്ങള് മാക്സിമം ഹോണേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് ഞങ്ങള് മേടിക്കുന്നത് അവര് തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അല്ല ഞങ്ങക്കിതിപ്പോൾ ഞങ്ങള് മെയിനായിട്ട് ഇവര് ഞങ്ങള് എടുക്കാറില്ല അപ്പോൾ സാറിന് താൽപര്യമില്ലെങ്കിൽ സാ സാറിന് താൽപര്യമില്ലെങ്കിൽ ഞങ്ങള് തനിയെ എടുക്കാം കാര്യങ്ങളൊക്കെ ഞങ്ങള് റേറ്റ് വേണമെങ്കിൽ പറഞ്ഞ് തരാം അപ്പോൾ നമുക്ക് പിന്നെ സാറിൻ്റെ താല്പര്യം എങ്ങനെയായിരുന്നു ഇപ്പം മൊത്തം എടുക്കുകയാണെങ്കില് ഒരു നമ്മള് ഇതൊക്കെ പൊളിച്ചു മാറ്റിട്ട് ഇതെന്താക്കാൻ ഇത് പൊളിച്ചു മാറ്റാന് കുറച്ച് ടൈമ് എടുക്കും മൊത്തമായിട്ട് ചെയുകയാണെങ്കിൽ അപ്പം നമുക്ക് ഇതിന് ഇതു പണിക്കൂലി ഇതു അമ്പത് വരും അമ്പത് പണിക്കൂലി വരും പിന്നെ ഫർണിച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അതിന് എക്സ്ട്രാ പൈസ വരും അത് നമ്മക്ക് അറിയില്ല അത് അവിടെ പോയിട്ട് ചോദിക്കണം ആ ഇപ്പം നിങ്ങള് അതിപ്പോൾ ടൈമ് നമുക്ക് വേഗം ഒരു മാസത്തിനുള്ളില് നമുക്ക് വേഗം തീർക്കാം അപ്പോൾ മെയിനായിട്ട് ഇതിനെ ഞങ്ങള് ഇതില് ഇതില് ഇപ്പം പണിക്കൂലിയും അങ്ങനെ വേറെ ഞങ്ങള് പെട്ടന്ന് തീർത്ത് ഒരു മണിക്കൂറിനുള്ളിൽ നമ്മള് മാക്സിമം നോക്കാം അതേപോലെ തന്നെ ഇതില് ഫർണിച്ചേഴ്സ് കാര്യങ്ങള് പോയി എടുക്കുമ്പോൾ സാറ് കൂടി വരികയാണെങ്കിൽ സൗകര്യമായിരിക്കും അല്ല ഞങ്ങളുടെ കൂടെ വരുമോ സാറ് അല്ല ഞങ്ങളുടെ കൂടെ ഞങ്ങള് കൂടെ ഉണ്ടാവും പിന്നെ എന്തെങ്കിലും നമുക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങള് പുതിയ പുതിയ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ തീർക്കുന്നുണ്ട് അതെങ്ങനെ അത് കാണിച്ച് തരാം സാറിനു പുതിയ പുതിയ പില്ലെഴ്സ് എങ്ങനെ പുതിയ ആ ആ ആ അയച്ച് തരാം അപ്പോൾ പുതിയ പുതിയ പില്ലേഴ്സ് കാര്യങ്ങളൊക്കെ ഫോണില് അയച്ച് തരണോ ആ എന്നാൽ ശരി ഞാൻ ഫോട്ടോസ് വാട്സാപ്പ് അയച്ച് തരാം താങ്ക്യു ആ ശരി എന്നാൽ